ഹലോ നമസ്കാരം ഇതാരാണ് സംസാരിക്കുന്നത് ആണോ മേഡത്തിൻ്റെ പേരെന്താണ് മാഡം ആ ആ എന്തായിരുന്നു മാഡം ഞാനൊരു ഹൗസ് ഓണർ ആണ് എൻ്റെ വീടെന്തെങ്കിലും വാടകയ്ക്കോ ആണോ വീട് വാടകയ്ക്കാണോ ആണോ ആ എവിടെയാണ് കോഴിക്കോടിൻ്റെ മാഡം ഇപ്പം ഞാനുള്ളത് കോഴിക്കോട് രാമനാട്ടുകരയാണ് ഇവിടെ നല്ലൊരു ആ ആ ഇവിടെ രാമനാട്ടുകര ഒന്നുണ്ട് മാഡം നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് പഴയ കോവിലകം പോലത്തെ അങ്ങനത്തെ ഒരു വീടാണ് ആ ആ അങ്ങനത്തെ നല്ലൊരു വീടും തന്നെയാണ് വീട്ടിലാണെങ്കിൽ സ്വിമ്മിങ്ങ് പൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് ബെഡ്റൂം ആണോ ഫ്രണ്ടിനായിരുന്നല്ലേ മാഡം ഫ്രണ്ട് എവിടെ ഉള്ളതാണ് കോഴിക്കോട് തന്നെയാണോ ആണോ ആ ആ അങ്ങനത്തെയൊക്കെ ഇടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് മാഡം ഇത് നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ കാണാവുന്ന അങ്ങനത്തെ ഒരു കോവിലകം പോലത്തെ ഒരു വീടാണ് ആ അങ്ങനെ രണ്ട് ആ അങ്ങനെ അങ്ങനത്തെ വീട് തന്നെയാണ് മാഡം ഇത് ഞങ്ങൾ ഈ ഇനിയും മേടിക്കാനോ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി പിന്നെ വാടക എന്ന് പറഞ്ഞാൽ വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ദിവസത്തിനാണ് മാഡത്തിനിപ്പോൾ ഒരു ദിവസത്തിന് ഒരു ദിവസത്തിന് ആയിരം രൂപ വരും വാടക ഒരു ദിവസത്തിന് മാസം പിന്നെ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വരും എത്ര ദിവസത്തേക്കാണ് വേണ്ടത് ഒരാഴ്ച്ചത്തേക്കാണോ ആ ആ അങ്ങനെയാണെങ്കിൽ ആ ഒരാഴ്ച്ചത്തേക്കാണെങ്കിൽ വീട് ഉണ്ട് ഇപ്പോൾ ഒരാൾ ഒരു കസ്റ്റമർ ഉണ്ട് ഇപ്പം വീട്ടിൽ അവരിപ്പം നാളെ പോവും ആ മാഡത്തിനിപ്പം നാളത്തേക്കാണോ വേണ്ടത് അതോ മറ്റന്നാളത്തേക്കാണെങ്കിൽ മറ്റന്നാളത്തേക്കാണെങ്കിൽ ഉപകാരമായിരുന്നു വീടൊക്കെയൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അറേഞ്ചൊക്കെ ചെയ്ത് വയ്ക്കാമായിരുന്നു ആ ആ വാടക ഇത്രയാണ് ഇരുപതിനായിരം വരും മാസം ഇരുപത് മുപ്പത് വരും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക് ആ ആ ആ അങ്ങനെയെന്തെങ്കിലും താത്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ശരി ആ ഓക്കെ ശരി